ഞാന് മത്സരമായിട്ട് കൂട്ടാൻ പറ്റില്ല പക്ഷെ ഞാൻ ഞങ്ങൾ സ്കൂളില് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഗയ്ഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഗേയ്ഡിങ്ങിന് ഞാനുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞങ്ങള്ക്ക് പാച്ചകമെന്നുള്ളത് ഒരു ആക്ടിവിറ്റി മാതിരി അതായത് സ്വന്തം ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ കുക്ക് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് തന്നിരുന്നത് കപ്പ കൊണ്ടുള്ള ഐറ്റംസ്സ് ഉണ്ടാക്കാനായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു മത്സര ഇനം എന്ന് പറയുന്നത് മത്സര ഇനമായിട്ട് അത് കൂട്ടാൻ പറ്റില്ല പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന സബ്ജെക്റ്റ് എന്ന് പറയുന്നത് കപ്പ കൊണ്ട് നമുക്ക് മാക്സിമം വ്യത്യസ്തമായ രുചികളുള്ള ഭക്ഷണങ്ങള് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞങ്ങൾ അന്ന് ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു അത് ചെയ്തത് ഞങ്ങൾ എന്തെന്ന് വച്ച് കഴിഞ്ഞാൽ കുറേ അന്വേഷിച്ചു ഞാന് വീട്ടിലുള്ള മുതിര്ന്നവരോടും പിന്നെ കുറേ പാചക ബുക്കുകളൊക്കെ റെഫറ് ചെയിതിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം ഞങ്ങൾ തനിയെ ഒരു ടീമായിട്ട് കപ്പ കപ്പ കൊണ്ടുള്ള പലതരം അതായത് കപ്പ കൊണ്ടുള്ള ഉപ്പ്മാവ് കട്ട്ലറ്റ് കപ്പ കൊണ്ടുള്ള ചിപ്സ്സ് അത്മാരിതന്നെ കപ്പ പുഴുക്ക് കപ്പ കൊണ്ട് കപ്പ പായസം അങ്ങനെ കപ്പ കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങള് തയ്യാറാക്കുകയും അത് ഞങ്ങൾ ടീച്ചേഴ്സിനും ഞങ്ങളുടെ അന്ന് ക്യാമ്പിൽ വന്നിരുന്ന മുഖ്യ അഥിതികള്ക്കും ഞങ്ങള് വിളമ്പി വിളമ്പുകയുണ്ടായി ഇലാഞ എല്ലാ ഞങ്ങളുടെ ആദ്യത്തെ ഒരു പാചക പരീക്ഷണമായിരുന്നെങ്കിലും എല്ലാവര്ക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു വിഭവങ്ങളായിരുന്നു അതിൽ ഉണ്ടായിരുന്നതെല്ലാം എല്ലാവരും ഞങ്ങളുടെ ആ ഒരു ഞങ്ങളെടുത്ത ആ ഒരു എഫേർട്ടിനെ ഞങ്ങളെ അഭിനന്ദിക്കുകയും ഞങ്ങൾക്ക് ഉള്ള ഒരു ഫീഡ്ബാക്ക് നല്കുകയും ചെയ്തു അതായത് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തതാണെങ്കിലും അതൊരു മോശമാവാതെ അതായത് ഒരു സാധാരണ ഒരു കപ്പ കൊണ്ട് നമ്മളെ നോര്മലി നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു കപ്പ കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ട്രൈ ചെയ്യാത്ത ഐറ്റംസ്സ് ആയിരുന്നു ഞങ്ങൾ അന്ന് പരീക്ഷിച്ചിരുന്നത് പക്ഷെ എല്ലാം സക്സസ്ഫുള് ആവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അത് എല്ലാവര്ക്കും ഇഷ്ടപ്പെടുകയും ഞങ്ങള്ക്ക് നല്ല നല്ല അഭിപ്രായം കിട്ടുകയും അത് ഞങ്ങള്ക്ക് ഒരു അത് എനിക്ക് ഒരു വലിയ ഒരു മോട്ടിവേഷനായിരുന്നു പിന്നീട് എന്റെ പാചകങ്ങള്ക്ക് പരീക്ഷണങ്ങള്ക്ക് അതൊരു വലിയ മോട്ടിവേഷന് തന്നെ ആയിരുന്നു എനിക്ക് ആ അനുഭവം